ആ എന്താ വേണ്ടത് ഏത് ഫോണാണ് വേണ്ടത് ആ അത് അപ്പോൾ ആൻഡ്രോയിഡ് ഫോണുണ്ട് അതോ ടച്ച് ഫോൺ സ്വിച്ച് ഫോൺ ഏതാണ് വേണ്ടത് ഐ ഫോണുണ്ട് ആൻഡ്രോയിഡുണ്ട് ആ ഇ എം ഐ ഉണ്ട് നമുക്ക് ഇട്ടു തരാം ഇ എം ഐ ഇട്ടുതരാം എല്ലാ ബേങ്കിലും ഇ എം ഐ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്കേത് ബേങ്കാണ് താത്പര്യം ആ ബേങ്കിലിട്ടു തരാം ഇപ്പോൾ നമുക്ക് ഐ ക്യു ഉണ്ട് റിയൽ മീയുണ്ട് ഐ ഫോണുണ്ട് സാംസങ്ങുണ്ട് വിവോണ്ട് ഓപ്പോണ്ട് ആൻഡ്രോയ്ഡിലാണ് ആ ആൻഡ്രോയ്ഡിലപ്പോൾ സാംസങ്ങുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയൊക്കെയുള്ള ഫോണുണ്ട് ഒരു തൊണ്ണൂറായിരം രൂപയുടെയൊരു ഫോണുണ്ട് സാംസങ്ങ് ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്രാ അതിൽ ക്യാമറ നല്ല ക്ലാരിറ്റിയുള്ള നല്ല ക്യാമറയാണ് ഒരു നൂറ് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇപ്പോൾ ഇറങ്ങിയതിലേറ്റവും നല്ലൊരു ക്യാമറ പെർഫോമൻസുള്ളൊരു ഫോണെന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഈ ഒരു ഫോണാണ്

അതിന് തൊണ്ണൂറായിരം രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വല്ലതും ഡിസ്കൗണ്ട് ചെയ്തു തരാം തൊണ്ണൂറായിരം നിങ്ങൾക്കിപ്പോൾ ഇ എം ഐയിലിടുന്നത് അപ്പോൾ മാക്സിമമൊരു അയ്യായിരം രൂപ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബാക്കി ഒരു എൺപത്തഞ്ച് നമുക്ക് ഇ എം ഐ ഇടാം അതിലിപ്പോൾ ഈ മാസം അപ്പോൾ നിങ്ങൾക്കെത്ര വർഷത്തേക്കാണ് ഇ എം ഐ ഇടേണ്ടത് ആതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു കൊല്ലത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം എങ്ങനെയാണ് നോക്കിയിട്ട് ചെയ്യണം ആ നമുക്ക് എന്തെങ്കിലും അക്സെസ്സറീസ് നമ്മൾ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഹെഡ് സെറ്റ് അല്ലെങ്കിൽ ഹെഡ് ഫോൺ ഗെയിം കളിക്കുന്ന അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുക്കും എഴുപത്തയ്യായിരം ആ റേഞ്ചിലിപ്പോൾ നമുക്ക് ഓപ്പോൻ്റെയൊരു ഫോണുണ്ട് അത് അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്ലാരിറ്റിയും പെർഫോമെൻസും ഉള്ള ഫോണാണ് അതൊരു പുതിയ സ്നാപ്പ് ഡ്രാഗണും കാര്യങ്ങളൊക്കെയുള്ളതാണ് അങ്ങനെയല്ല നമുക്കിപ്പം എല്ലാ ഫോണും ഇ എം ഐ ഓപ്ഷൻ ഉണ്ട് ഏതിനാണെങ്കിലും ഞങ്ങൾ ഇ എം ഐ ഇട്ടു തരാം നിങ്ങൾക്ക് താത്പര്യമുള്ള ഏത് ഫോണാണെന്ന് വെച്ചാൽ ഇ എം ഐ ഇട്ട് തരുന്നതായിരിക്കും ആ നമുക്കിപ്പോൾ ബജാജിനൊക്കെ നമുക്ക് പലിശ കൂടുതലായിരിക്കും സാധാരണ പോയി ഇൻ്റസിൻഡ് ബാങ്കോ ഇൻ്റസിൻഡ് ബാങ്കുണ്ട് ഇൻ്റസിൻഡ് ബാങ്കാകുമ്പോൾ ഏറ്റവും പലിശ കുറവായിരിക്കും നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട് നമുക്ക് നോ കോസ്റ്റ് ഇ എം എ ഇപ്പോൾ അത് അടവ് കൂടും ഇപ്പോൾ മന്ത്ലി ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ച് അടക്കുകയാണെങ്കിൽ അല്ലെണ്ടിൽ ലിമിറ്റഡുമാണ് ആ ടൈമിനുള്ളിൽ അടച്ചെങ്കിൽ മാത്രമേ നോ കോസ്റ്റ് ഇ എം ഐ കിട്ടുകയുള്ളൂ നോ കോസ്റ്റ് ഇ എം ഐ ആണെങ്കിലും ഇപ്പം ഒരു ഒൻപത് മാസം കൊണ്ട് ക്ലിയർ ചെയ്യേണ്ടി വരും ഒൻപത് അടവിനുള്ളിൽ ക്ലിയർ ചെയ്യേണ്ടി വരും

ആ അത് വരുമായിരിക്കും അടച്ചു തീരില്ല

ആ അല്ല അക്കൗണ്ട് സെക്ഷനിൽ ചെന്ന് അക്കൗണ്ട് സെക്ഷനിൽ ചെന്നിട്ട് ആധാർ കാർഡും പാൻ കാർഡും കൊടുത്താൽ അത് ഇ എം ഐ ഇട്ട് തരും ഏത് ബാങ്കാണോ നിങ്ങളുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി നമ്മൾ ചെയ്തു തരും